എനിക്ക് മലയാളത്തിലെ പല വാക്കുകളും പല സംസാര രീതികളുമൊക്കെ വളരെ രസകരവും ശ്രദ്ധേയവുമായി തോന്നിയിട്ടുണ്ട് ചിലത് അസാധാരണമായി തോന്നിയിട്ടുണ്ട് അങ്ങനെ പലതരം വാക്കുകളും പ്രയോഗങ്ങളും മലയാളഭാഷയിലുണ്ട് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ കേരളത്തിൻ്റെ പലഭാഗത്തായിട്ട് കേരളത്തിൽ പതിനാല് ജില്ലകളാണുള്ളത് പല ഭാഗത്തായിട്ട് പല രീതിയിലാണ് ആൾക്കാര് മലയാളം എന്നുള്ള ഒരൊറ്റ ഭാഷ സംസാരിക്കുന്നത് പല സ്ലാങിലാണ് സംസാരിക്കുന്നത് ഇപ്പോൾ വാട്ട് നമ്മൾ ഇംഗ്ലീഷിൽ വാട്ട് എന്ന് ചോദിക്കുന്നത് മലയാളത്തിൽ എന്ത് എന്നാണ് നമ്മൾ നോർമൽ ലാംഗ്വേജിൽ പറയുമ്പോൾ നോർമൽ ഭാഷയിൽ പറയുമ്പോൾ സാധാരണ ഭാഷയിൽ പറയുമ്പോൾ എന്ത് എന്നാണ് പറയുക എന്ത് എന്നാണ് പറയുക നമ്മള് പക്ഷേ നമ്മളത് ഓരോ ജില്ലകളിൽ പോകുന്തോറും പല രീതിയിൽ അതിനെ പറയുന്നതായിട്ട് നമുക്ക് കാണാം തൃശ്ശൂര് തൃശൂർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അതിനെ കുറെ പേർ എന്തൂട്ടാ എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാം സ്ലാങ്ങില് പിന്നീട് കോട്ടയം ഭാഗത്തേക്ക് പോകുവാണെങ്കിൽ എന്നാ അല്ലെങ്കിൽ പത്തനംതിട്ട ഭാഗത്തേക്ക് ആണെങ്കിൽ എന്തുവാ എന്ത് എന്നുള്ള ഒരൊറ്റ വാക്കിൻ്റെ പല പല രീതിയിലുള്ള പ്രെനോൻസിയഷനും സ്ലാങ്ങും ആണ് നമ്മള് പല നമ്മുടെ പല ജില്ലകളിലേക്കും നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക പിന്നെ നീ എന്നുള്ള ഒരു പ്രയോഗം അതായത് ഇംഗ്ലീഷിൽ യു എന്നാണ് അതിനർത്ഥം നീ എന്നുള്ള ഒരു വാക്ക് നമ്മൾ പല ജില്ലകളിലേക്കും പോകുമ്പോൾ അത് മാറുന്നുണ്ട് അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് നമ്മള് പോകുവാണെങ്കില് ഇയ് എന്ന് പറയുന്നത് കേൾക്കാം പക്ഷേ എന്നാൽ മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ആ അതിനെ ചിലര് ഇച്ച് എന്ന് പറയുന്നത് കേൾക്കാം പിന്നെ നമ്മള് കൊച്ചി ഭാഗം എറണാകുളം ജില്ലയിലെ കൊച്ചി ഭാഗത്തേക്ക് ഒക്കെ വരികയാണെങ്കില് നിങ്ങ അല്ല അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം അപ്പോൾ നീ നിങ്ങൾ എന്നുള്ള വാക്കിന് പലതരം സ്ലാങ്ങുകളാണ് പല ജില്ലകളിലും ഉള്ളത് പിന്നെ നമ്മള് എറണാകുളം ഭാഗത്ത് നമ്മള് നോക്കുകയാണെങ്കിൽ നമ്മ നിങ്ങ ന്നുമ്മ എന്നൊക്കെ പറയുന്നത് കേൾക്കാം അതെല്ലാം മലയാളത്തിലെ പല സ്ളാങ്ങുകളാണ് ഇതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഇത് മലയാളം എന്ന് പറയുന്നത് ഒരൊറ്റ ഭാഷ തന്നെയാണ് പക്ഷേ ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇത് മലയാളം ഇത് തന്നെയാണോ എന്ന് തോന്നിപ്പോകും കാസർഗോഡ് ഭാഷ കണ്ണൂർ ഭാഷ വളരെ സ്പെഷ്യൽ ആണ് കാസർഗോഡ് ഭാഷയിൽ കുറച്ച് ഒരു കന്നട ഇൻഫ്ലുവൻസ് ഉണ്ടാകും പാലക്കാടൻ സൈഡിൽ ഉള്ള മലയാളം നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് തമിഴ് ഇൻഫ്ലുവെൻസ് ഉണ്ടാകും പിന്നെ നമ്മൾ സൗത്ത് സയിഡ്സിലേക്ക് വര വരുമ്പോൾ അതായത് തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ ആ അവിടുത്തെ മലയാളം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻറ്റ് ആയിരിക്കും അപ്പം ഓരോ ജില്ലയ്ക്ക് അനുസരിച്ചും മലയാളം ഭാഷയിൽ അതിൻ്റെതായ വ്യത്യാസങ്ങൾ വരുന്നത് നമുക്ക് കാണാം